ആ ഹലോ എന്നാ ആ സുഖമാണെടാ നിനക്കോ

ആ കഴിഞ്ഞേയുള്ളൂ ഞാനും ഫ്രീയാടാ ഇപ്പം ഇപ്പം വെക്കേഷനല്ലേ ക്ലാസ്സ് ഒക്കെ കുറച്ച് കഴിഞ്ഞേ തുടങ്ങുള്ളൂ

ആ കേരളാ ബ്ലാസ്റ്റേഴ്സിൻ്റെയാണോ ആ ആ കൊച്ചിയിൽ കാണാം പതിമൂന്നാം തീയതി ഉണ്ടല്ലോ എന്നാൽ അത് തന്നെയങ്ങ് പോയാലോ ആ ആ അല്ല അവിടെപ്പോയിട്ട് എടുക്കാം മറ്റേ അവിടെ പോയിട്ട് എടുക്കുമ്പോൾ വിലക്കുറവുണ്ടെന്നാ പറയുന്നത് കേട്ടത് എല്ലാവരും

ഈ ടിക്കറ്റ് ഒക്കെ കിട്ടെ ആ പക്ഷേ ഇപ്പം ഫാൻസ്സുമായിട്ട് കുറേ പ്രശ്നം ഉള്ളതുകൊണ്ട് ടിക്കറ്റ് ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ തവണ ആ പിന്നെ ആ പിന്നെ രാഹുലൊക്കെ പോയില്ലേ ടീമീന്ന് ആ ആ ആ ആ അ ആ ഈ ഇടുക്കിയിൽ കളിയിൽ ജയിക്കും എന്നൊന്നും എനിക്ക് തോന്നുന്നൊന്നും ഇല്ല കാരണം ടീമിൻ്റെ പെർഫോമൻസ്സ് മൊത്തത്തിൽ മോശമാണ് പ്ലേയേഴ്സ്സ് ആവശ്യത്തിനുള്ളത് ഇല്ല കോച്ചില്ല ഇത്രയും പ്രശ്നം ഒക്കെ ഉള്ളപ്പോൾ ജയിക്കുക അതുപോലെത്തന്നെ ഒഡീഷയുടെ കൂടെയല്ലേ കളിക്കേണ്ടത് ഒഡീഷ എന്ന് പറയുമ്പം പോയ്ൻറ്റ് റ്റേബിൾൽ എത്ര നമ്മളൊക്കെങ്ങാണ്ട് പത്തിലോ പതിനൊന്നിലോ എങ്ങാണ്ടാ കിടക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നത് അവരെങ്ങാണ്ട് ആറാമത്തെ ഉള്ള ടീമാ ഇവിടെ ജയിക്കണം എന്ന് പറയുമ്പം കുറച്ച് കഷ്ടപ്പാടാ ശ്രമിച്ചാൽ ജയിക്കുമായിരിക്കും അ ആ അതെ

മ്മ് നോക്കാം അതെ അതെ നമ്മുടെ ടീമ് ആയതുകൊണ്ട് പിന്നെ തോറ്റാലും ജയിച്ചാലും സപ്പോട്ട് അല്ലേ ചെയ്യാൻ പറ്റത്തുളളൂ

ആ എടാ ഞാൻ ബസ്സിന് ഇവിടുന്നൊരു ബസ്സ് ഉണ്ട് അപ്പം അതിന് വരാമെന്നോർത്താ നീ എറണാകുളത്ത് കാണുമോ അല്ല ആ നീ എന്നാൽ ഒരുമിച്ച് പോയാലോ ആ വൈകിട്ടാ നമുക്ക് ഇവിടുന്ന് വൈകിട്ട് ആറുമണിക്കുള്ളിൽ അവിടെ ചെന്നാൽ മതി

ആ ആ ആ എന്നാൽ നേരത്തെ ഇറങ്ങിയേക്കാം ആ എടാ കളി കഴിഞ്ഞിട്ട് എങ്ങനെ ഈ തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റുമല്ലോ ടൈം ആ പത്തു മണി കഴിയില്ലേ ന്നാ ആ നിനക്കറിയാമോ പരിചയം ഉള്ള ഹോട്ടല് വല്ലതും ഉണ്ടോ ആ ഓക്കെ ആ

ആ പോയി നോക്കാം ആ അപ്പം ശരി എന്നാൽ അപ്പം കളി ആദ്യം കാണാൻ പോയേക്കാം ഓക്കെ ആ ഓക്കേ

ആ ആ നിൻറ്റേ വണ്ടിയുണ്ടോ അതോ കൂട്ടുകാരുടെ ആരെങ്കിലും വണ്ടിയാണോ ആഹാ കാറാണോ ബൈക്കാണോ ആ ആ

ആ ശരിയാ പറയാനും പറ്റില്ല അതും ശരിയാ ആ ആ അങ്ങനെ ചെയ്യാമെടാ

ആ ആ ഓക്കെ ശരി എന്നാൽ ഓക്കെ ആ ശരി എന്നാൽ